മൃഗങ്ങളെ നമ്മള് നല്ല കുട്ടികളെ വാങ്ങി വളർത്തി പാകമാക്കി നമ്മല് പാല് ഉത്പാദന വിതരണത്തിനായി എടുക്കുന്നെങ്കിൽ വൃത്തിയോടെ കറന്ന് അത് ക്ഷീരോല്പാദക സംഘങ്ങളിൽ ഒക്കെ കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം ഇപ്പോൾ ക്ഷീരോല്പാദക സംഘങ്ങളിൽ കൊടുക്കുന്നതിൽ എപ്പോഴും നമ്മുക്ക് വരുമാനം എന്നുപറയുന്നത് വീടുകളിൽ തന്നെ കൊടുക്കുന്നതാണ് കൊടുത്ത് നമ്മളൊരു നാലഞ്ച് ആറ് പ്രാവശ്യം ഒക്കെ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ പശുവിന് വളരെ ഗണ്യമായ ക്ഷീണങ്ങള് വരുമ്പോൾ നമ്മള് സാധാരണ നമുക്കതിനെ വളർത്തുവാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മളത് അറവു ശാലകളിലൊക്കെ കൊടുക്കാറുണ്ട് അത് അസുഖങ്ങൾ വന്നതിന് ശേഷം ഒരിക്കലും നമ്മളതിനെ കൊടുക്കരുത് നമുക്ക് വില കിട്ടണേലും അതിനെ കൃത്യമായി അതിനെ പരിപാലിച്ച് അതിന് രോഗങ്ങളൊന്നും ഇല്ലായെന്ന് ഉറപ്പാക്കിക്കഴിഞ്ഞതിനുശേഷം കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളെ മൃഗങ്ങൾക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള അതിന് പണം നമുക്ക് കിട്ടും നമ്മൾ എന്നാൽ മാത്രമേ നമ്മള്ക്ക് ആ ഒരു തൊഴിലോട് നമ്മൾ അത് ആത്മാർത്ഥതയും കൂറും നമുക്ക് പുലർത്താൻ സാധിക്കുകയുള്ളു എപ്പോഴും മൃഗങ്ങളെ അസുഖങ്ങൾ വന്നതും അല്ലെങ്കില് അങ്ങനെയുള്ള ഇതിനെ നമ്മള് വില്ക്കുന്നതിനകത്ത് ഒരിക്കലും പറ്റൂല കാളക്കുട്ടൻ തന്നെ ആണേലും നമ്മളതിനെ കൊണ്ടുവന്നു അതിനെ വേണ്ട വിധത്തിൽ പരിപാലിച്ചു അതിന് നല്ല ശക്തിയും ഇതും വരുന്ന രീതിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തതിന് ശേഷം ആ അതിനെ കശാപ്പ് ചെയ്യുന്ന സമയങ്ങളിലാണേൽ ആ കശാപ്പ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോഴും അതിന് രോഗങ്ങളൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തി നല്ലതായി കൊടുത്താൽ നമ്മുടെ ഈ നമ്മുടെ മൃഗങ്ങളെ വാങ്ങുവാൻ ആൾക്കാര് വരുകയും നല്ല രീതിയിൽ നമുക്കത് കൊണ്ട് പൈസ സമ്പാദിക്കുവാനും സാധിക്കും